ഹലോ അതേ

ആ ആ ആ അ ശരി ആ ആ ആ അത് യൂണിഫോമൊണ്ട് എന്റെ കൈയ്യിലുണ്ട് ഞാനത് വൺ വ വണ്ടീൽ വണ്ടീലുണ്ടായിരുന്നു ഇടാനായിട്ട് ഇച്ചിരി താ ബുദ്ധിമുട്ടാണ് അതാര്ന്നിടാഞ്ഞത് എത്രെയും വേഗമിത് ആ അത് ആ അറിയാം അറിയാം ആ ആ അതെ സാറെ അതെ സാറെ അറിയാവുന്നതാണ് അറിയാവുന്നതാന്ന് ആ ലൈസൻസ്സൊള്ള ഒരാഴ്ച്ച ഉണ്ട് സാറെ

അവോ അ ഉവ്വ് അതെ അതേ ഞ വെച്ചേ ഞാൻ ഫൈനൊവിടണ്ട സാറെ എന്തായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം സാറെ ആ ആ സാറെ അതെന്തായാലും എന്തെങ്കിലും നമുക്കൊരു നീക്ക് പോക്കൊണ്ടാക്കാം സാറെ അത് നമ്മൾ കാര്യവില്ല സാറ് നമ്മുടെ നേരിൽ നേരിൽ നേരിൽ കണ്ട് നേരിൽക്കണ്ട് സംസാരിക്കാം സാറെ അത് കേസൊന്നുവാക്കണ്ട ഫൈനൊന്നു അടിക്കാൻ പാ അടിക്കാതിരിക്കാം സാറെ ഹലോ സാറെ ഞാനൊരു പാവം ഒരോട്ടൊ ഓട്ടൊ ഹലോ സാറെ അതോ ഓട്ട് ഒ സാറെ ഈ മഴ മഴയും മഴക്കാലവക്കെ അല്ലെ സാറെ ഓട്ടം ഓട്ടം തീരെക്കുറവാണു വണ്ടി അപ്പം ഡീസലടി ഡീസലടിക്കാമ്പോലും പൈസ കിട്ടുന്നില്ല ഉള്ള പൈസ കിട്ടുന്നില്ല സാറെ ആ അതെ അതെ സാറെ എന്നൊന്ന് സാറ് ക്ഷമിച്ചാലെ സാറ് സാർന് സാർന്

സാറിനെ സാർ സാറിനെ നേരിട്ട് കാണേണ്ട രീതി കാണേണ്ട രീതീ കണ്ടോളാൻ സാറെ അ സാറെ അത് അത് അത് അത് സാറെ പെറ്റി ക്കേസൊന്നുവാക്കല്ലെ ഞങ്ങളതൊന്ന് പെറ്റി ആളൊണ്ട് ഇനി രണ്ട് ദിവസത്തേക്ക് കൈയറിഞ്ഞു സാറെ ഇനി അതൊന്ന് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചോളാം ആ സാറെ അത് എനിക്ക് എന്തെങ്കിലുവൊരു വരും വരു പരിഹാരമാർഗം ഉണ്ടാക്ക് സാറെ അ ഒവ ഒവ ആ ഉവ്വ ആ സാറെ ശരി ശരി ആ ശരി ഞാൻ അടച്ചോളാം സാറെ ഡീൽ